ഹലോ ഒരു ക്യാബ് വേണമായിരുന്നു ആ ഒരഞ്ചു കിലോമീറ്റർ ആ പനവള്ളി ട്ടു കാട്ടുകുളം ആ റോഡൊന്നും മോശമില്ല ആ ഓക്കേ നല്ല റോഡാണ് ഒന്ന് തിരുനെല്ലിക്കും പോവണമായിരുന്നു തിരുനെല്ലിക്കെത്രയാ റേറ്റ് എഴുനൂറുപ്പ്യ ഓക്കേ അപ്പോൾ കാട്ടിക്കുളത്തേക്കാന്നെങ്കിൽ അഞ്ഞൂറ് രണ്ടും സൈമാണ് ഏകദേശം ആ റോഡ് കുറച്ച് മോശമാണ് തിരുനെല്ലിക്കുള്ളത് ഓ അതുകൊണ്ടാണോ കൂടുതൽ ആ ഓക്കേ ആ എൻ്റെ കുടുംബത്തോടൊപ്പം എനിക്ക് എന്താ പറയുക അടുത്തുള്ള മറ്റേ ബാണാസുരയിലൊന്നു പോവണമായിരുന്നു അപ്പം എന്താ പറയുക ഒരു ക്യാബ് ബുക്ക് ചെയ്യണം എത്ര പേരാ നാല് പേരാണ് ആ നാല് പേർക്ക് ആ വൺ ഡേ ഫൈവ് തൗസൻറ്റാ അപ്പോൾ സീറ്റിനനുസരിച്ച് മാറുമോ അപ്പോൾ ആറുപേരാണ് ഏയിറ്റ് തൌസൻഡ് വരും ആ ഓക്കേ ഒരു നാലു പേരുള്ള ക്യാബ് വേണമായിരുന്നു കേട്ടോ ആ ഓക്കേ ആ ഓക്കേ ഓക്കേ വണ്ണവറാ ആ ഓക്കേ താങ്ക് യൂ